ഐ എസ് ആറോയുടെ ചരിത്ര നേട്ടം തന്നെയാണ് ചന്ദ്രയാൻ ഈ ചന്ദ്രയാൻ വിക്ഷേപിച്ചതോടു കൂടിയാണ് ചന്ദ്രനിൽ ജീവൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് കണ്ടെത്തിയത് ജീവൻ്റെ കണികൾ വികസിപ്പിച്ചെടുക്കാൻ ഈ ശാസ്ത്രജ്ഞൻമാർ എപ്പോഴും പല തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനിലെ ജലാംശം കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രനിലെ ജലാംശം കണ്ടെത്തിയതോടു കൂടി തന്നെ അവിടെ ബാഹ്യ ജീവൻ ഉണ്ടാകുമെന്ന് ശാസ്ത്ര ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഗവേഷണങ്ങളും നടക്കുന്നുണ്ട് ചന്ദ്രനിലെ ജീവൻ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞൻ അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു